എന്റെ ഒരു സുഹൃത്തിന് കായിക ഇനത്തില് പരിശീലനം അവരുടെ സ്കൂളുകളിൽത്തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവര് സ്കൂളുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ച ശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവനത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഫീസ് കൊടുത്തൊരു കോച്ചിനെ പരിശീലനത്തിന് നേടിയിട്ടും നേടാൻ ശ്രമിച്ചിട്ടും അതിനു നല്ല നല്ലൊരു കോച്ചിനെ കിട്ടേംചെയ്തില്ല അത് ഫീസൊക്കെ കൂടുതലായ് കൊടുക്കേണ്ടിയും വരുന്നു നല്ലൊരു കോച്ചിനെ കിട്ടാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ വളരെയേറെ കുറവാണ് ഉള്ളത്